എന്റെ മോൻ വളരെ മെലിഞ്ഞിട്ട് ഒരാളായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇ കുഞ്ഞിനെ കാണുമ്പോഴേക്ക് എല്ലാവരും എന്നോട് ചോദിക്കും എല്ലാവരും ചോദിക്കും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാറില്ലെ കൊടുക്കാറില്ലെ പക്ഷെ അപ്പം എന്നൊടത്ത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമായത് കൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ എങ്ങനേലും ഒന്ന് ശരീരം വണ്ണം വെപ്പിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ അറടുത്തുള്ളവരോടൊക്കെ ചോദിപ്പോഴത്തേക്ക് കുറച്ച് ഒരാൾ പറഞ്ഞു നമ്മുടെ ചൂടുള്ള പാലിലേക്ക് കോഴിമുട്ട നാടൻ കോഴിമുട്ട അടിച്ച് ചേർത്ത് രാവിലെ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കുറെ ഞാൻ കൊടുക്കാറുണ്ട് കുഞ്ഞിന് പിന്നെ കുറേ നാൾ അങ്ങനെ തന്നെ കൊടുത്തു കൊണ്ടിരിക്കുക പിന്നെ കൊടുത്ത് കൊണ്ടിരിക്കുക അപ്പം അത് കണക്ക് തന്നെ ബദാം വെള്ളത്തിലിട്ട് അവന് കുതിർത്ത് അരച്ചു പാലിൽ ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക മുന്തിരി ഉണക്കൻ മുന്തിരി തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ ഞെരടി ആ വെള്ളവും ആ ഇതും കൂടെ കഴിക്കുക അപ്പം കുഞ്ഞിന് അത്യാവശ്യം വണ്ണം വച്ച് വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് അവന് ശരീരഭാഗം ഭാരം കൂടിയിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഏത്തപ്പഴം ഞാൻ ഡെയിലി അവന് ഏത്തപ്പഴം നെയ്യിൽ വറത്തിട്ട് പിന്നെ ഇച്ചിരി ചെറുതായിട്ട് കൽക്കണ്ടമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് നെയ്യിൽ വറുത്തിട്ട് അപ്പം അത് അവന് ഇഷ്ടമാണ് അവന് ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് അത് ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണുമ്പം എനിക്ക് സന്തോഷമാണ് പിന്നെ അവന്റെ ശരീര ഭാഗത്തിന് നല്ല വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് ഞാൻ ആ അകത്തെ അകത്തെ അകത്തുള്ള ആ ഭാഗം എടുത്ത് കറുത്ത സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് പാലിൽ ചേർത്ത് അവന് കൊടുക്കാറുണ്ട് അപ്പം അവന് അത്യാവശ്യം ഇപ്പം വണ്ണം വച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇതൊക്കെയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഓരോത്തർ പറഞ്ഞ് ഞാൻ കേൾക്കാൻ ഞാൻ അത് പരീക്ഷിച്ചിട്ടില്ല പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ എന്റെ മോൻ അത്യാവശ്യം അവന് ആവശ്യമുള്ള ശരീരഭാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് സന്തോഷവ എനിക്ക്